ഒരു ദിവസം ഞാനെന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ പാടെ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കടി ഉണ്ടാക്കും കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കടി ഉണ്ടാക്കി കഴിയുമ്പം കടിയും കാപ്പിയും കൂടെ കുടിക്കും പിന്നെയൊരു പത്തുമണിയാകുമ്പോൾ പിന്നേയും ഒരു ഗ്ലാസ് കാപ്പി കുടിക്കും എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഉണ്ടെങ്കില് അങ്ങനെ കുടിക്കും പിന്നെ അതുകഴിഞ്ഞിട്ട് ഉച്ചക്ക് നമ്മള് ഒരു മണിയാകുമ്പോൾ ഒരു മണി ഒന്നര രണ്ടുമണിക്കുള്ളില് എന്തായാലും ഫുഡ് കഴിക്കും ഉച്ചക്കത്തെ ഫുഡ് അതിലിപ്പോൾ എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാകും എന്തെങ്കിലും തോരനുണ്ടേൽ തോരനുണ്ടാവും ഇല്ലെങ്കിൽ പപ്പടം ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കി വൈന്നേരം ആകുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കും എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കിയാൽ ഉണ്ടാക്കും എന്തെങ്കിലും കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് തന്നെ ഉണ്ടാകുമല്ലോ പത്ത് മണിൻ്റെ സ്നാക്സ് ചിലപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ അത് കഴിക്കും രാത്രി ഒരു എട്ട് മണി ഒൻപത് മണിക്കുള്ളിൽ എങ്ങനെയാണെങ്കിലും ഫുഡ് കഴിക്കും അതും ചോറു തന്നെ ആയിരിക്കും കഴിക്കുക കൂടുതലും ചോറു ആയിരിക്കും ചില ദിവസങ്ങളില് രാവിലത്തെ ദോശ മാവൊക്കെ ഉണ്ടെങ്കിൽ ചില ദിവസം അതായത് മൂഡ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചുട്ട് കഴിക്കും അങ്ങനെയാണ് എൻ്റെ ആഹാരരീതി പിന്നെ പക്ഷേ നിലവാരമുള്ള പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ടോന്നു വെച്ചിട്ടുണ്ടെങ്കില് അതിപ്പോൾ അതായത് എല്ലാം ഇപ്പം വിഷം അടിച്ചിട്ടാണല്ലോ ഉള്ളത് അപ്പം നമുക്ക് അതായത് ആ വിഷം ഇല്ലാത്ത സാധനമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പച്ചക്കറികളും അരിയും മറ്റു ധാന്യങ്ങളുമൊക്കെ എല്ലാത്തിലും അത്യാവശ്യം എന്തെന്നങ്കിലും മരുന്ന് അടിക്കാതെ നമുക്കൊന്നും കിട്ടുന്നില്ല പിന്നെ വീട്ടിൽ എന്തെങ്കിലും നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജൈവ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി കഴിക്കാം അത്രേയുള്ളൂ